എനിക്ക് കളിക്കാൻ കൂടുതൽ താല്പര്യമുള്ളത് കളി വിഭാഗമാണ് ഫുഡ് ബോൾ കാരണം പണ്ട് മുതലേ അത് ഞാൻ കളിച്ച് തുടങ്ങിയിരുന്നു ചെറുപ്പം തൊട്ട് തന്നേ അതിനോടുള്ള ഇഷ്ടം കൂടി വന്നു ഇപ്പോളും ഞാൻ അതിനെ ഇഷ്ടപെടുന്നു കാരണം പണ്ടു മുതലേ തന്നെയുള്ള ഇഷ്ടം തന്നെയാണ് കളിക്കാനും കളി കാണാനും വളരെ ഇഷ്ടമാണ് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് കളിസ്ഥലങ്ങളും കളി കളികളങ്ങളും ഒക്കെ ഉണ്ട് അവിടെ എല്ലാം എല്ലാദിവസവും കളിച്ചാണ് നടക്കുന്നത് അത്കൊണ്ട് ഫുഡ് ബോളാണ് കൂടുതൽ കളിക്കാൻ ഇഷ്ടമുള്ളത്